ഇപ്പോൾ ഞങ്ങളുടെ പട്ടണത്തിൽ ബാലവേല നല്ലരീതിയിൽ ഉള്ളൊരു നഗരമാണ് നമ്മുടെ കോഴിക്കോട് എന്നുവേണമെങ്കിൽ പറയാം കരണമെന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണെങ്കിൽ പോലും ഒരു ജോലിക്ക് ഇറങ്ങുന്ന അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ പോകുന്നുണ്ട് ഇപ്പോൾ മിട്ടായിത്തെരുവിൽ ഇഷ്ടംപോലെ ഇപ്പോൾ പത്തിലും പ്ലസ് ടു ഒൻപത് എട്ട് അങ്ങനത്തെ ക്ലാസ്സുകളിലൊക്കെ പഠിക്കുന്ന ഇഷ്ടംപോലെ കുട്ടികൾ മിട്ടായിത്തെരുവിൽ അവിടെയൊക്കെ ജോലിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അപ്പം അവർക്ക് മെയിനായിട്ട് എന്താ വെച്ചു കഴിഞ്ഞാൽ ചെറിയൊരു ചില്ലറ പൈസ അതായത് അവർക്ക് അവരുടേതായ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പൈസക്ക് വേണ്ടിയിട്ടാണ് അവർ കൂടുതലായിട്ടും ഇറങ്ങുന്നത് ചിലവർ അല്ലാത്ത ചില്ലറ ജോലികൾ അതായതിപ്പോൾ കുറെ കുട്ടികൾ പിച്ചയെടുക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട് അവരുടെയൊക്കെ മൈനായിട്ടൊരു ഉദ്ദേശം എന്താ വെച്ചുകഴിഞ്ഞാൽ ആ പൈസ മേടിച്ചിട്ട് വലിയ വലിയ ആൾക്കാർ ആ പൈസ കൊണ്ടാണ് ജീവിക്കുന്നത് അപ്പം അവരെ പിച്ചയെടുക്കാൻ വേണ്ടിയിട്ട് അവരുടെ പൈസയും കൊണ്ട് ജീവിക്കുന്ന കുറെ ആൾക്കാർ നമ്മുടെ നാട്ടിലിപ്പോഴും ഉണ്ട് ഇപ്പോൾ പലതരം ജോലികളിലൂടെയാണ് പിള്ളേർ പണിയെടുക്കുന്നത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പം അതൊക്കെ നല്ലരീതിയിൽ നിർത്തുകയാണെങ്കിൽ അവർക്ക് പഠിക്കാനുള്ള അവസരങ്ങളും കാര്യങ്ങളും കൊടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും